ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നമുക്കൊരിക്കലും മറ്റു രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സമ്പ്രദായമായിട്ട് കമ്പേയറേയ്യാൻ സാധിക്കുകയില്ല കാരണമെന്താണെന്നു വച്ചുകഴിഞ്ഞാല് ഇന്ത്യയിലേ പ്ലസ് റ്റു വരെ ഉള്ള താഴ്ന്ന പ്ലസ് റ്റു വരെ ഉള്ള വിദ്യാഭ്യാസ സമ്പ്രദായമെന്നു പറയുന്നതു തീരെ ലോക്കലും എന്താ പറയുക ഒരൂ സെലക്ഷനില്ലാത്ത രീതിയിലുള്ള മെതേടിലുവാണ് പഠിപ്പിക്കുന്നത് എന്നാൽ അതില് ഫ്യൂച്ചറെന്തെന്നറിയാത്തൊരെജ്യുക്കേഷൻ സിസ്റ്റമാണ് ഇന്ത്യയില് ഒന്നാം ക്ലാസ്തൊട്ട് പ്ലസ് റ്റു വരെ വരെ പോകുന്നത് അത് നേരെ തിരിച്ച് നമ്മൾ വിദേശ രാജ്യങ്ങൾളിലേക്കു നോക്കുകയാണെങ്കിൽ അവിടെ കു കുട്ടികളായിരിക്കുമ്പോൾത്തന്നെ അവരുടെ ഫ്യൂച്ചറെന്താ അവരുടെ ഫ്യൂച്ചർ പ്ലാനിലേക്കവരുടെ ആഗ്രഹമെന്താ അതിലേക്കൊരു ഇൻട്രസ്റ്റ് പോലാണവര് കളാസ്സുകളെടുക്കുന്നതും പഠിപ്പിക്കുന്നതും സ്പോർട്ട്സാക്റ്റിവിറ്റീസാണേലുമെല്ലാം ആണേലും പിള്ളാര് കൂടുതൽ മുന്നിട്ട് നില്ക്കുകയാണ് എന്നാലിന്ത്യയിലെ കുട്ടികള് എഡ്യൂക്കേഷനെന്ന് പറയുന്നൊരു ലോക്കൽ സിസ്റ്റത്തിലേക്ക് മുഴുകിയിരിക്കുകയാണ് ചെയ്യുന്നത് വേറൊന്നുമില്ലാതെ പഠിത്തം മാത്രം പ്ലസ് റ്റു കഴിഞ്ഞ് ആ ഓ നഴ്സിങ്ങ് ഓർ ഡിഗ്രി കോഴ്സുകളിലേക്ക് മാത്രം ചുരുങ്ങി പോവുകയാണ് സെൻട്രൽ ഗവൺമെൻറ്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്റെയും അണ്ടറിലുള്ള പല സെക്ഷൻസുകളുവറിയാതെ എന്തിനോ വേണ്ടി പഠിച്ച് ഏതേലുവൊരു ജോലി മേടിച്ചും പെട്ടെന്ന് സേഫാകാമെന്നോണ്ട് മാത്രം അതിലേക്ക് ചുവട് വച്ച് പോകുന്ന യൂത്തിനെയാണു നമ്മൾ കൂടുതലും കാണുന്നത് പിന്നെ പുറം രാജ്യത്തിപ്പോവാണെങ്കിൽ അവരവരുടെ ഫ്യൂച്ചറതേപോലെ തന്നെ കണ്ട് കണ്ട് കണ്ട് കണ്ട് പഠിച്ച് ഓക്കെയായി വരുന്നെയാണ് നമ്മള് കാണുന്നത് താരതമ്യം ചെയ്യുക ഒരിക്കലും പോസിബിളല്ല ഇവിടെ ലഭ്യമല്ലാത്ത കാര്യം ടെക്നോളജി ടെക്നോളജി ഇനിയും വളരേണ്ടതുണ്ട് ഇന്ത്യയിലേ തന്നെ ഡിഗ്രി പി ജി കോഴ്സുകള് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഒരു ഭൂരിഭാഗം സ്റ്റു സ്റ്റുഡൻസ്സും പ്ലസ് റ്റു കഴിഞ്ഞൊരു തൊണ്ണൂറു ശതമാനം സ്റ്റുഡൻസ്സും നേരെ യൂറോപ്പ് കണ്ട്രീസ്സ് ചൂസേയ്ത് പോവുകയാണ് അത് എന്തുകൊണ്ടാണെന്നു ചോദിച്ചാല് ഒന്നേ പറയാനുള്ളു അവിടത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അവരുടെ ലൈഫിനേ ആ ഗവണ്മെൻറ്റ് അവിടത്തെ ആ കണ്ട്രി നൽകുന്നൊരു സെക്യൂരിറ്റി ഇതെല്ലാം ആണവരെ അതിലേക്ക് കൊണ്ടുപോവുന്നത് ഇന്ത്യയെന്നു പറയുന്നൊരു ലിറ്ററസിയില് ഇത്രയും വളർന്നേക്കുന്നൊരു കണ്ട്രീലെന്തുകൊണ്ടിത് പോസ്സിബിളാക്കിക്കൂടാ ഇന്ത്യയിലെ കുട്ടികൾക്കെന്തുകൊണ്ട് ഇന്ത്യയില്ത്തന്നെ നല്ലൊരു ഭാവി കണ്ടുകൂടാ എന്നുള്ളൊരു ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയേണ്ടതാണ് മെച്ചപ്പെടുത്തണ്ടേന്നു ചോദിച്ചുകഴിഞ്ഞാല് എഡ്യൂക്കേഷൻ സിസ്റ്റന്തന്നെ ടോട്ടലീ മെച്ചപ്പെടുത്തണം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേ പല കാര്യങ്ങളും മെച്ചപ്പെടുത്തണം ടെക് ടെക്നിക്കലീ ബ്രയിൻ ഡെവലപ്പ്ഡ് ബേസ്ഡായിട്ടുള്ളേ ക്ലാസുകള് കൊണ്ടുപോകണം പിന്നെ ഉറങ്ങി ഇരുന്നു വെറുതേ പഠിച്ചുവളർന്നൊരു സിസ്റ്റമല്ല നമുക്ക് വേണ്ടത് ഇതാണ് മെയിനായിട്ടും മാറ്റുകയും ചെയ്യണ്ടത് അതിന് വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്